എനിക്ക് ചെടിയൊക്കെ നല്ല ഇഷ്ടമാണ് കെട്ടോ അപ്പോൾ ഞാനെപ്പളും ചെടികളൊക്കെ ഉണ്ടാക്കലുണ്ട് അതേപോലെ മരങ്ങള് കുഴിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ചെടി കുറെ കുഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പല സമയത്തും പല പൂവ്വ്കള് അല്ലേ ഉണ്ടാവുക എല്ലാ മരങ്ങള് ഒരേ നേരത്ത് പൂവ് ഉണ്ടാവില്ലല്ലൊ അപ്പോൾ എല്ലാ പൂവുകളും ഉണ്ടാകുന്നൊരു അതിന് വേണ്ട വളങ്ങള് ചെയ്ത് കൊടുക്കുന്നതും അത് പൂത്ത് നിൽക്കുന്നത് കാണുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ മരങ്ങള് ഞാൻ പല മരങ്ങളും തൊടിയിൽ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചകളൊക്കെ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും വളം ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് വളം ചെയ്ത് കൊടുക്കും അതേപോലെ ചിലതൊക്കെ നമ്മള് മുറിച്ച് കമ്പൊക്കെ മാറ്റി റെഡിയാക്കി കൊടുക്കേണ്ടത് ഉണ്ടാകും അതൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനൊക്കെ ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും ഒരു മരമുണ്ടാക്കി അതിന് മേലൊരു കായ് കിട്ടുക അതിൻ്റെ ഇപ്പമൊരു മാ മാവാണെങ്കില് മൂച്ചി കുഴിച്ചിട്ട് മാങ്ങ ഉണ്ടാവുന്നത് കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇവിടെ ഞാൻ അത്പോലെ രണ്ട് മൂന്ന് മൂച്ചിയൊക്കെ കുഴിച്ചിട്ട് വളമൊക്കെ ചെയ്തു കൊടുത്ത് നല്ലത് പോലെ നനയ്ക്കുകയും ചെയ്തപ്പം മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ മാങ്ങ അതിന്മേൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതേപോലെ തന്നെയാണ് ചെടികളും ചെടി പല മോഡല് ചെടികളും കുഴിച്ചിട്ടുണ്ട് അതിനൊക്കെ കൊടുക്കേണ്ട നേരത്ത് അതിൻ്റെ വളമൊക്കെ കൊടുത്ത് നനച്ച് നല്ലത് പോലെ നനച്ച് കൊടുത്ത് അത് അങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ലൊരു സന്തോഷാണ് മനസ്സിന് നമ്മള് ചെടിയൊക്കെ വളർത്തുന്നത് നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലത് പോലെ ചെടികളൊക്കെ ഉണ്ടാക്കുക പൂവിടുന്നത് നോക്കിനിൽക്കുക അതിൻ്റെ കൊമ്പു കോതെണ്ട സമയത്ത് അതൊക്കെ കോതിക്കൊടുക്കുക അത്പോലെത്തന്നെ അതിന് വളം ചെയ്ത് കൊടുക്കുക വെള്ളം നനച്ച് കൊടുക്കുക ചില മൊട്ടുകളൊക്കെ നമ്മളൊന്ന് പിച്ചി കൊടുക്കേണ്ടതും ഒഴിവാക്കി കൊടുക്കേണ്ടതും ഒക്കെ ഉണ്ടാകും അതൊപ്പം മ പിന്നെ വരുന്ന പൂവ് നന്നാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ആ സമയത്ത് കൃത്യസമയത്ത് നുള്ളി കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നല്ല പൂവ് എങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല രസകരമാണ് അതേപോലെ തന്നെയാണ് മരങ്ങളൊക്കെ കുഴിച്ചിട്ടാല് മരം കുഴിച്ചിട്ടാൽ നമുക്ക് കായ്കൾ ഒക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ ഇപ്പോൾ പ്ലാവ് ആണെങ്കിൽ ചക്ക ഉണ്ടാകും മാവാണെങ്കില് മാങ്ങ ഉണ്ടാകും അതൊക്കെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ അത് നല്ല തണലുവാണ് നമ്മള് വളർത്തി ഉണ്ടാക്കിയ ഒരു സാധനം നല്ല രീതിയില് വളർന്ന് വന്ന് അതിന്മേൽ നിന്നൊരു ഫലം കിട്ടുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നേ തേങ്ങ തെങ്ങ് കുഴിച്ചിട്ടുണ്ട് അത് ചെറുത് ചെറുതാകുമ്പോൾ തന്നെ കുഴിച്ചിട്ട് അതിൽ ഉള്ളതൊക്കെ പാർന്ന് വളമിട്ട് വലുതായി അതിന്മേൽ തേങ്ങ ഉണ്ടാവുന്നത് കാണാൻ അതുപോലെ തന്നെ നല്ലൊരു സന്തോഷമല്ലേ നമുക്കാവശ്യമുള്ള ഒരു സാധനം ആണ് നമ്മള് കുഴിച്ചിട്ട് ഉണ്ടാകിയതിന് മേല് കായ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ പച്ചക്കറികളാണേങ്കിലും പലവിധ മരങ്ങളും മരം കായ് ഉണ്ടാകുന്ന കുറെ മരങ്ങളില്ലേ സപ്പോട്ടെയോ ബദാമ് അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കുക മാവ് പ്ലാവ് അത് കുഴിച്ചിടുക അതിൻമേലൊക്കെ കായ് ഉണ്ടാകുമ്പോൾ അത് കാണുന്നത് നല്ലൊരു സന്തോഷകരം നല്ലൊരു അനുഭവമാണത് അതുപോലെ തന്നെയാണ് പൂവുകള് ഉണ്ടാകുമ്പോളും ചെടികളെ നമ്മൾ ഇപ്പം ഒരു റോസാപ്പൂവാണെങ്കില് അതിൻ്റെ ചെറിയ ഒരു കമ്പ് കൊണ്ടുവന്ന് കുത്തി ഉണ്ടാക്കിയത് താഴത്ത് വളമൊക്കെ ഇട്ടെടുത്ത് നനച്ച് അതിമേലൊരു പൂവ് ഉണ്ടാകുന്ന സമയത്ത് വല്ലാത്തൊര് സന്തോഷമാണ് നല്ലൊരു അനുഭവമാണത് നമ്മളങ്ങനൊര് പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ മനസിലുള്ള എല്ലാ വിഷമങ്ങളും തീരാനും അതുപോലെ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാകാനും എല്ലാ ചെടികളും അങ്ങനെ തന്നെ ഓരോന്നും വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഓരോ നേരത്തും പൂവാണെങ്കില് പൂവ് കായാണേങ്കില് കായൊക്കെ നമ്മള് വളർത്തി നനച്ചുണ്ടാക്കി കൊണ്ടുവന്നതാകുമ്പോൾ നല്ലൊരു സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടാവുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ലോണം മരമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കലും ചെടി കുഴിച്ചിടലും പച്ചക്കറി കുഴിച്ചിടലും ഒക്കെ ഉണ്ട് പച്ചക്കറിയാണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് നല്ലത് കിട്ടും ചെയ്യും നമ്മള് കുഴിച്ചിട്ട് ഉണ്ടാക്കിയാൽ നനച്ച് അതിനെമേൽ ഒര് മുളകാണെങ്കിൽ ആ മുളക് ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അത് പറിച്ചെടുക്കാനും അതിന് വളം ചെയ്യാനുമൊക്കെ നല്ലൊരു ഇഷ്ട്മാണ് ചെടികളാണെങ്കിലും അങ്ങനെ തന്നെ അതിൻ്റെ രീതിക്ക് അനുസരിച്ച് അത് നോക്കി കൊണ്ടുവന്ന് വളമെടുത്തിട്ട് പൂവിടുന്ന് ഓരോ സമയത്തും ഓരോരോ പൂവുകൾ ഉണ്ടാകൽ എല്ലാ പൂവുകളും കാണുമ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും നമ്മൾ ചെയ്തൊര് ഇത് ഉണ്ടാവുക പറയുമ്പോൾ അത് നല്ലൊര് ഒരു പ്രത്യകമൊരു അനുഭവം തന്നേ നമ്മൾ നോക്കി വളർത്തിയതിന്മേൽ ഉണ്ടായത് പറയുമ്പോൾ മാവായാലും പ്ലാവായാലും അതേപോലെ പപ്പായ കറൂത്താന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ കുഴിച്ചിട്ടുണ്ടായി അതിന്മേൽ കറൂത്ത ഉണ്ടായി അത് നമ്മൾ അതിൻമേൽ നിന്ന് അറുത്ത് കറിണ്ടാക്കാണെങ്കിലും പഴുപ്പിച്ച് തിന്നാനാണെങ്കിലുമൊക്കെ നല്ല സന്തോഷമല്ലെ പിന്നെ ചെടികളും അങ്ങനെ തന്നെ എല്ലാവിധ ചെടികളും കുഴിച്ചിടാനും അതിന്മേൽ പൂവ് ഉണ്ടാവുന്നത് കാണാനും ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ചെറിയൊരു തോട്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കുറെ ഒരുവിധ പൂ ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അതൊക്കെ പൂവ് ഇടലുണ്ട് ഓരോ സീസണിലും ഓരോ തരം പൂവുകളായിട്ട് ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ ആ കാലത്തത് വളമൊക്കെ ഇട്ട് കൊടുത്ത് നനച്ച് നോക്കി അതിന്മേൽ പുവൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്